ഇന്നത്തെ കാലത്ത് ഭൂമിശാസ്ത്രപരമായിട്ട് കുറച്ച് അറിവൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ടു പോകാനും ജീവിതം മുന്നോട്ടു കൊണ്ടു പോകാനൊക്കെ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ കേരളം എന്നു പറയുന്നത് കാടും മലയും കുന്നും താഴ്വാരങ്ങളും അതുപോലെ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് അത് അതു കൊണ്ട് തന്നെ നമ്മുടെ ഭൂമിശാസ്ത്രം എങ്ങനെ നമ്മുടെ പ്രദേശം എങ്ങനെയാണ് കിടക്കുന്നത് കിടപ്പുവശം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അത് അറിഞ്ഞിരിക്കുകതന്നെ വേണം കാരണം ഇന്നത്തെ കാലത്ത് മഴക്കാലവും മഴയൊക്കെ കൂടും അതുപോലെ ഈ പ്രകൃതിക്ഷോഭം കാലാവസ്ഥ വ്യതിയാനം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഭൂമിശാസ്ത്രപരമായിട്ട് എന്തെങ്കിലൊക്കെ അറിയുമെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഉപകാരമാണ് കാരണം മലയൊക്കെ ഉരുൾപൊട്ടാനും അതുപോലെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഡാമൊക്കെയാണെങ്കിൽ ഡാമിൻ്റെ അവിടെ വെള്ളം കൂടാകയാണെങ്കിൾ ഡാം തുറന്നു വിട്ടാൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ മനസ്സിലാകണമെങ്കിൾ നമുക്ക് ഏതാണ്ട് നമ്മുടെ പ്രദേശത്തെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും ഒക്കെ അറിയണം അത് അറിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ടു പോകാൻ പറ്റുകയുള്ളൂ